ഹലോ അ അല്ലല്ലോ എന്താണ് സാറെ ആ അതായത് താഴത്തെ ഫ്ലോറ് ഫുള്ള് അടിച്ചു ഇപ്പം മോൾത്ത ഒര് രണ്ട് റൂമ് തന്നെയാണ് ബാക്കി ഉള്ളത് ബാക്കിയാവുമ്പോൾ ഓൾറെഡി അ നമ്മൾ പെയിൻ്റ് ഏകദേശം ഉം ആ ആ ആ ആ ആ ആ പ്പൊ ആ തീർക്കണം വേഗം അല്ല തീർക്കണം നമ്മൾ രണ്ട് ദിവസം തീർക്കാം സർ എന്താണ് പ്രശ്നം എന്ന് വച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പം പണി എടുത്താൽ എല്ലാവരിലും കുറച്ച് കുറച്ച് പെയിൻ്റ് ബാക്കിയാവും അപ്പം ബാക്കി അതിൽ നിന്ന് കൂട്ടി ചെയ്ത് വരുമ്പോൾ അപ്പം നമുക്ക് മറ്റേ രണ്ടിൽ ചുമര് അടിച്ച് കഴിഞ്ഞാൽ ആ പെയിൻ്റ് ബാക്കി മിക്സാക്കി നമുക്ക് അടുക്കള ഭാഗത്തേക്കുള്ള മിക്സാക്കി പെയിൻറ്റ് അടിക്കാം വേസ്റ്റ് ആവാണ്ട് നമുക്ക് നോക്കാം അത് ലാഭമല്ലെ ആ ആ ആ ആ ഉം അത് അടിച്ചതാണ് അതിൻ്റെ പൈസ നിങ്ങൾ മേടിക്കുമ്പോൾ നമ്മൾ കുറച്ചിട്ടല്ലെ മേടിച്ചത് അത് എടുത്തതിൻ്റെ പൈസ നിങ്ങൾ കുറച്ച് കൂട്ടിയോ മേ നിങ്ങൾ അല്ലെ അത് എന്നോട് പറഞ്ഞത് അതെയോ വേറെ പണിക്കാറെ വച്ചാൽ ഒന്ന് അതൊന്നാണ് അതൊന്ന് വച്ചാൽ നമുക്ക് ഇപ്പോൾ പണി ഇല്ല നാട്ടിലെ പണിക്കാർ എന്ന് വച്ചാൽ ഇപ്പം ബംഗാളികളെ കൊണ്ടാണ് പണി എടുപ്പിക്കുന്നത് അപ്പോൾ ഓർക്ക് ഓറ് ഇത് എല്ലാം എടുത്തിട്ട് പോന്ന് അപ്പോൾ അതൊന്ന് നോക്കണം പെയിൻറ്റ് വർക്ക് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് അടുത്തു നിന്ന് നിങ്ങൾ നിങ്ങൾ എപ്പോൾ എപ്പോൾ പോവേണ്ടത് നിങ്ങൾക്ക് ബുധനാഴ്ച കഴിയും ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ സമയം തരണം നിങ്ങൾ സമയം തന്നാൽ മതി അതിനുള്ളിൽ എല്ലാം ഫിനിഷാക്കും അല്ലാതെ നിങ്ങൾ ഓട്ടിന് പെയിൻ്റ് അടിക്കണ്ടെ ഓട് ഇപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പൾത്തെ ഈൻ്റത്ത് ഓടിന് പെയിൻറ്റ് അടിച്ച് വെള്ളം ഇറങ്ങും ഓടല്ലെ നല്ലത് അപ്പോൾ അതും കൂടി ഞാൻ ഫിനിഷാക്കിത്തരാൻ വേണ്ടിയിട്ട് ആ അത് മിഷൻ പെയിൻ്റ് ഇറക്കി ആക്കാം ആക്കാം ആ ഏത് അത് നമുക്ക് ഇതാക്കും അതായത് അടുത്ത വെള്ളിയാഴ്ച ആവുമ്പോഴേക്കും ഇതെല്ലാം ഫുള്ള് ക്ലിയർ ഓടിന് അടക്കം പെയിൻ്റ് ഒക്കെ റെഡി ആക്കിത്തരും നിങ്ങൾക്ക് ഓക്കെ അല്ലെ ഓക്കെ ശരി പൈസ എന്നാൽ ഒന്ന് ക്ലിയറാക്കുകയും വേണ്ടെ ഓക്കെ ഓക്കെ ശരി ശരി ശരി